ഹലോ അതെ ആ പറ ആ ആ ആ ഇത് ആ ഇതിന് തീം വല്ലതും ഉണ്ടോ ഈ കളർ തീം അങ്ങനെ എന്തെങ്കിലും ആ ആ വൈറ്റ് റോ വൈറ്റ് റോസും റെഡ് റോസും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം അങ്ങനെ ആണെങ്കിൽ ആ ആ റോസ് പല ഫ്ലവേഴ്സിനും പല റേറ്റ് ആണ് റോസ് ഇത്

ആ അങ് ഇത് അങ്ങനെയാണെങ്കിൽ റോസ് ഒരു രണ്ടായിരം രൂപയ്ക്ക് തരാം പൂ മാത്രം ഇപ്പോൾ പൂ മാത്രം ആയിട്ടേ ചെയ്ത് തരാൻ പറ്റുള്ളൂ ആ കൊ ഡെലിവറി തരാനേ പറ്റുള്ളൂ ഡെക്കറേഷനുള്ള ആളില്ല ഇപ്പോൾ

അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ആ ആ ഓ അതിന് മുമ്പായിട്ടൊന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി ആ ഒ ഓ ആ ഓക്കെ